പതിനാല് ഒന്ന് രണ്ടായിരത്തി രണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി മൂന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി നാല് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ആറ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്